എനിക്ക് ഏറ്റവും കൂടുതൽ നീന്താനിഷ്ടം പുഴയിലാണ് പുഴയിൽ ആകുമ്പോൾ അത്യാവിശ്യം എന്താ പറയുക വെള്ളം ഭയങ്കര നല്ല ശുദ്ധമായ വെള്ളമായിരിക്കും അപ്പോൾ അതൊരു റിഫ്രഷിങ്ങ് അതായത് നമുക്കൊരു കുറച്ചുകൂടി എനർജൈസ് തരുന്ന ഒരു പരുപാടിയാണ് കുളത്തിൽ കുളത്തിലെക്കാട്ടിലും പുഴയിൽ നീന്തുന്നത് എന്താണെന്നു വച്ചു കഴിഞ്ഞാൽ ഈ കുളത്തിൽ സ്വിമ്മിംഗ് പൂളെന്നൊക്കെ പറയുമ്പോൾ കെട്ടിക്കിടക്കുന്ന വെള്ളമാണ് അതിൽ വലിയ ഓളവും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ആ വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ അതിന്റേതായ ചില പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകും പിന്നെ അതു മാത്രമല്ല ഈ പുഴയിൽ നീന്തുകയെന്നു പറയുമ്പോൾ പുഴ യൂഷ്വലി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഒന്നുമില്ലെങ്കിൽ അതിനെ എതിർത്തു നീന്തണം അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം നീന്തണം എതിർത്ത് നീന്തുകയാണെന്നു പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കപ്പാസിറ്റി അല്ലെങ്കിൽ നമുക്ക് നീന്തുന്നതിൻ്റെ സ്ട്രെഗ്ത്ത് നമുക്ക് കുറച്ചും കൂടി സ്റ്റാമിന അതായത് നമ്മുടെ ആരോഗ്യപരമായിട്ട് കുറച്ചും കൂടി ഒരു മുൻകൈ കിട്ടും കാരണം നമ്മൾ ആ പുഴയുടെ ശക്തിനെ എതിർത്ത് അതിന് എതിരായിട്ട് നീന്തുമ്പോൾ അല്ല നീന്തൽ അറിയാത്ത ആളാണെന്നു പറയുമ്പോൾ നമുക്ക് പുഴയുടെ ഒപ്പം നീന്തുകയാണെന്ന് പറയുമ്പോൾ പെട്ടന്നു തന്നെ നീന്തി പഠിക്കാനും കാര്യങ്ങളൊക്കെ പറ്റും അപ്പോൾ അവിടെ എന്താ പറയുക ഈ മുങ്ങിപ്പോകുന്നതിനേക്കാളും കുറച്ചും കൂടി നമ്മൾ ആയാസത്തിൽ ചെറിയ ഒരു ആവേശം കൊടുക്കുമ്പോൾത്തന്നെ നമുക്ക് നല്ല രീതിയിൽ നീന്താനും കാര്യങ്ങളൊക്കെ പറ്റും അതു കുട്ടികൾക്ക് കുറച്ചും കൂടി ഒരു പഠിക്കാൻ ഉള്ള ഒരു എളുപ്പവും ആയിരിക്കും അതുപോലെ അവർക്ക് ഇൻ്ററസ്റ്റും ഉണ്ടാകും അതുകൊണ്ട് കുറച്ചും കൂടി നല്ലത് പുഴയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കുളത്തിലാകുമ്പോൾ അവിടെ നിന്നിടത്തുനിന്നു നീന്തിയിട്ട് അവർ കുറേ നേരം കൈയ്യും കാലും ഇട്ടടിച്ചങ്ങ് നീന്തുക അപ്പോൾ മുമ്പോട്ട് പോയില്ല അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്ക് നിരാശ വരും അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും ഈ പുഴയിൽ നീന്തുമ്പോൾ